ഇപ്പോൾ ഞാന് സമൂഹമാധ്യമങ്ങളില് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ലരീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാന് പോസ്റ്റ് ചെയ്യുക പിന്നേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കേ ഞാന് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലാണ് എല്ലാവരും നമുക്ക് കുറച്ച് ആൾക്കാര് ആക്റ്റീവായിട്ടുള്ളത് കാരണം നമ്മുടെ എന്താ പറയുക നമുക്ക് കൂടുതലായിട്ടും നമ്മൾ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ ആൾക്കാര് സർക്കാരിനടുത്തും അങ്ങനെ മന്ത്രിമാരുടെയൊക്കെ അടുത്താണ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരൊക്കേ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കേ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നേ അവരിലേക്ക് ഇപ്പോൾ നമ്മുടെ ജനത്തിൻറ്റെ ഓരോ കാര്യങ്ങള് അതായത് ഇപ്പോൾ എന്തേലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരാള് ഭക്ഷണത്തിനുവേണ്ടിയിട്ട് അലയുന്ന ആളാണെങ്കില് ഞാൻ അവരുടെ ഫോട്ടോയെടുത്തിട്ട് ഇട്ടുകൊടുക്കും കാരണം ഇതൊക്കെയെല്ലാവരും കാണേണ്ടതാണ് ഒരു പിച്ചയെടുക്കുന്നവര് നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെയുണ്ടാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ വലിയ സമ്പദ് വ്യവസ്ഥ എല്ലാർവർക്കും പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മള് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അവരുടെ രീതിയില് അവരുടെ ഇതിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെയൊക്കെ നല്ലരീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നല്ലരീതിയിൽ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ അതൊക്കേ ഇടുന്നത്